കല്യാണം പോലുള്ള വലിയ ചടങ്ങുകളിലെ വലിയ അളവിൽ വെള്ളം ക്രമീകരിക്കാനായിട്ട് ഞാൻ വലിയ ടാങ്ക് വാങ്ങിക്കും ആ വലിയ ടാങ്കിൽ വെള്ളം അടിച്ച് വെക്കും എന്നിട്ട് ആ വെള്ളം ടാങ്കിലെ വെള്ളം എപ്പോഴും ഉണ്ടോ എന്ന് നോക്കും അല്ലെങ്കിൽ അതനുസരിച്ച് വെള്ളം മോട്ടറ് വഴി അടിച്ച് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് എടുത്ത് അടിക്കും ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ ആ ടാങ്ക് വെച്ചിട്ട് ആ ടാങ്കിൽ വലിയ ടാങ്ക് വാങ്ങിക്കും എന്നിട്ടാ വലിയ ടാങ്കിൽ വെള്ളം എപ്പോഴും നിറച്ച് നിറച്ച് ശേഖരിച്ച് ശേഖരിച്ച് വെക്കും വെള്ളം തീരുന്നില്ലെന്ന് ഉറപ്പാക്കും എന്നിട്ട് ഈ ക്രമീകരണങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പിന്നെ വന്നിട്ട് കൈ കഴുകാൻ ട്ടാപ്പ് വെക്കും ഓരോ സ്ഥലത്തും ട്ടാപ്പ് വെക്കും ആ ട്ടാപ്പിൽ ഒരു മിതമായ രീതിയിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ